ആധുനിക യുഗത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ താത്പര്യം പ്രകടിപ്പിക്കുന്നു അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഒരു പരിധിവരെ ഓൺലൈൻ ഗെയിമിങ്ങ് അവരുടെ ബുദ്ധിപരമായ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നയിന് ഉദകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ അതിനു വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ ഔട്ട് ഡോർ ഗെയിംസിലേക്കുള്ള അവരുടെ ശ്രദ്ധ കുറഞ്ഞുപോകുന്നു കായികപരമായും ഉള്ള അവരുടെ കഴിവുകൾ അതുപോലെതന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഒക്കെ അതിൽ നിന്നും പിന്നോട്ടു പോകുന്ന ഒരു റൂമിൽ അടച്ചിരുന്ന് വളരെ സമയം അവർ ഈ ഓൺലൈൻ ഗെയിമിങ്ങിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുമ്പോഴേക്കും കണ്ണിനു കേടുണ്ടാകുന്നു അതുപോലെതന്നെ ഒട്ടും തന്നെ എക്സർസൈസ് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് അതേസമയം അതിനുവേണ്ടി ഒരരമണിക്കൂറോ വല്ലതും സമയം ചിലവഴിച്ചതിനു ശേഷം മറ്റു സമയങ്ങളിൽ ഔട്ട് ഡോര് ഗെയിമിങ്ങിലേക്ക് ഇടപെടുകയാണെങ്കിൽ അവർക്ക് കായികപരമായി അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽക്കൂടി കൂടുതൽ എക്സസൈസും മറ്റും ഉണ്ടാകുന്നതു കൊണ്ട് അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പലതും രോഗങ്ങളും മറ്റും ഉണ്ടാകാതെ നോക്കും നല്ല പേശി നല്ല ദൃഢതയുള്ള ഒരു ശരീരഘടന വളർത്തിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് കൂടുതൽ മറ്റു ഗെയിംസ് സ്പോർട്സ് ആൻഡ് ഗെയിംസിലേക്കൊക്കെ ഇടപെടുമ്പോഴേക്കും കൂടുതൽ ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന അവരുടെ ആശയങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സൗഹൃദങ്ങൾ സ്നേഹബന്ധങ്ങൾ അതുപോലെ തന്നെ ട്രിക്കുകൾ എല്ലാം നമുക്കു മനസ്സിലാക്കി എടുക്കുവാനായിട്ടും വളർന്നുവരുന്ന തലമുറയ്ക്ക് അത് ഭാവി ജീവിതത്തിലേക്ക് ഒരു മുതൽകൂട്ടാകുവാനും സാധിക്കും